കല്യാണത്തിനോ

ആ ഞാന് ഈ ഇന്നലെ വന്നതാണ് അപ്പോള് ഈ നമ്പറാണ് എനിക്ക് തന്നത് മാഡം എന്താണ് എന്തോ അങ്ങയുടെ പേരെന്താണ് ഓക്കെ ഓക്കെ ഞാന് ഇന്ന് ഇന്നലെ ആണേ ഈ നാട്ടിലേക്ക് തിരിച്ച് വന്നത് ഞാൻ ഈ നാട്ടുകാരൻ അല്ല അപ്പോള് ഒന്ന് കേരളത്തിന്റെ കലകളെക്കുറിച്ച് എന്നോട് പറഞ്ഞു തരുമോ കഥകളി കേട്ടിട്ടുണ്ട്

കഥകള് പറഞ്ഞുകൊണ്ടുള്ള കളിയാണോ കഥകളി ഗാനാരൂപത്തിലാണോ ഇത് പാടുന്നത് അതോ നിങ്ങള് സംസാരിക്കുകയാണോ കഥകളിയില് അല്ല എത്ര പേരുണ്ടാകും ഒരു കഥകളിക്കകത്ത് സാധാരണ ആയിക്കോട്ടേ കുഴപ്പമില്ല ആ പുരാണങ്ങളെ ആസ്പദമാക്കിയാണോ സാധാരണ കഥകളി

ഓക്കെ എത്ര പേരാണ് മാർഗം കളിയിൽ വരുന്നത് എത്ര പേരാണ് പങ്കെടുക്കുന്നേ

എന്താണ് ഈ ചാക്യാർക്കൂത്ത് അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും പറഞ്ഞു തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു വീണ്ടും നമുക്ക് കാണാം എന്നാ ഓക്കെ താങ്ക്യു